ഹലോ ടീച്ചർ ചിത്ര ടീച്ചറല്ലേ ആ ടീച്ചർ എൻ്റെ പേര് സ്രീജേന്നാണെ ടീച്ചറിൻ്റ അവിടെ ഒരു സ്രീജേഷെന്ന് പറയുന്ന ഒര് കുട്ടി പഠിക്കാൻ വരുന്നുണ്ട് ഡാൻസിനും പാട്ടിനും വേണ്ടിയിട്ട് ആ ആ കുട്ടിയുടെ ് അമ്മയാണെ ടീച്ചറെ എനിക്കൊര് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പം എൻ്റെ മോൻ്റെ പെർഫോമൻസ് ഈ പാട്ടിലായാലും ഡാൻസിലായാലും അവിടുത്തെ പെർഫോമൻസ് എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ടീച്ചർ ആ ആ മോൻ ഇപ്പം സ്കൂളിലൊരു പാ എന്തെങ്കിലും ഒരു ആ ഇത് വന്നാൽ ഒര് പ്രോഗ്രാം വന്നാൽ ഏതിനായിരിക്കും ടീച്ചർ കൂടുതൽ ആപ്റ്റായിട്ട് ഉള്ളത്

ആ ടീ ടീച്ചർ ആ അല്ല വീട്ടിൽ വന്നിട്ട് അധികവൊന്നും നമ്മള് പറയുമ്പഴത്തേക്ക് അവൻ ഇത്തിരി പ കളിക്കാനൊര് ഷൈ ആണ് അപ്പം അയ് അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് വിളിച്ചത് തന്നെ ഇവിടെ പുറത്ത് നിന്ന് ആരെങ്കിലും വന്നാൽ അവന് ഡാൻസ് കളിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നും എന്നാൽ ഒര് സയ നാണക്കേട് അങ്ങനെ ഒന്നും ഇല്ലല്ലൊ ടീച്ചർ

ആ ആ ആ

ആയിരിക്കും ആയിരിക്കും അല്ലെ സ്കൂളിലിപ്പം ഇനി ഇപ്പോൾ പ്രോഗ്രാം വരുന്നു അപ്പഴത്തേയ്ക്കും എന്തിനെങ്കിലും ടീച്ചറ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ എന്താണന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ടീച്ചറ് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവര് ചോദിച്ചപ്പോൾ എനിക്ക് ടീച്ചറിനോട് ചോദിച്ച് എന്താണ് എങ്ങനെയാണ് പെർഫോമൻസെന്ന് അറിഞ്ഞിട്ട് ഞാന് ആ ഒര് കാ എന്തേലും പറയാമെന്ന് ടീച്ചറിനോട് ഒന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിനെ വിളിച്ചത് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറയാമെന്ന് വിചാരിച്ചു

ആ ആ ആ തെ ടീച്ചർ അപ്പം വീട്ടില് വന്ന് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഒന്ന് ടീച്ചറ് പറയണെ വീട്ടിൽ വന്ന് ഇത്തിരി കുറവാണ് വീട്ടിൽ വന്നൊന്ന് ആ ഒര് ചെയ്ത് പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒന്ന് ടീച്ചറും കൂടെ ഒന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ക്ലാസ്സ് വന്നിട്ട് എന്തെങ്ക് ഒന്ന് ഈ കുറച്ച് സമയം കൂടി ഈ ഞായറാഴ്ച കണ്ടൊന്ന് കൂട്ടിയാലെ സമയം എന്നും അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്നു എന്തേലും ആ ശരി ടീച്ചർ അപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കണെ ടീച്ചർ അപ്പം മൊത്തം എങ്ങനെയാണെന്ന് എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതിയാവും ആ ശരി ടീച്ചർ താങ്ക്യൂ താങ്ക്യൂ മ്